സാധാരണ ആയിട്ട് ഞാൻ കഴിക്കാറുള്ള മത്സ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൂടുതലായിട്ടും ഇപ്പോൾ പച്ച മത്സ്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് അതില് ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മത്തിയാണ് ഞാൻ കൂടുതല് കഴിക്കാറുള്ളത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അയലയും കഴിക്കാറുണ്ട് പിന്നെ അയലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ ലേശം കൂടുതലാണ് അപ്പോൾ അയല ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല പിന്നെ ചിക്കൻ ഞാന് ലേറ്റാ എന്താ പറയുക കഴിക്കാറില്ല കാരണം എനിക്ക് ചിക്കനോട് വലിയ താൽപര്യം ഇല്ല പിന്നെ ഞാൻ പന്നി കഴിക്കാറുണ്ട് പന്നി ആവശ്യത്തിലേറെ ഞാൻ കഴിക്കാറുണ്ട് പിന്നേ മത്സ്യങ്ങളില് പിന്നേ ഞാൻ ഉള്ളത് എന്താ പറയുക ഇപ്പം ഉണക്ക മത്സ്യങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ കഴിക്കാറുള്ളത് ഇപ്പോൾ ഉണക്ക മത്സ്യങ്ങളേ കുറിച്ച് പറയുകയാണെങ്കില് ഇപ്പം ഇവിടെയുള്ള ഉണക്ക മത്സ്യങ്ങളൊക്കെ എന്താ പറയുക പുറമേ നിന്നു കൊണ്ട് വരുന്നവയാണ് അപ്പോൾ അതിലൊക്കെ ഭയങ്കര വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കാരണം ഇവര് ഉണക്കുന്ന രീതിയൊന്നും വലിയ ശരിയല്ല ന്ന് പാ ഞാ ടീവിലൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ നല്ല രീതിയില് വർത്തയൊക്കെ കാണുന്ന ഒരാളായതുകൊണ്ട് ആ ടീവിയിലൊക്കെ കണ്ടു അപ്പോൾ ഞാൻ അത് കഴിക്കലും അങ്ങനെ നിർത്തി കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുകയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നിർത്തിയേക്കുവാണ്